പഴയ ഗാനങ്ങളും പുതിയ ഗാനങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഏതാണ് എനിക്കിഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പഴയ ഗാനങ്ങൾ തന്നെയാണ് ഇഷ്ടം അതായത് ഒരു മധ്യതലമുറയിലെ ആ ഒരു ഗാനങ്ങളൊക്കെയാണ് ഇഷ്ടം അതായത് നയൻറ്റീൻ നയൻറ്റീസിലെ ഗാനങ്ങൾ ഇപ്പോൾ ഒക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി അതായത് പാട്ടിലുള്ള ലിറിക്സിൽ തന്നെ ഒരുമാതിരി നെഗറ്റീവ് ഉള്ള ഓരോ വേഡുകളൊക്കേ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ തുള്ളലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണ്ടത്തെ പാട്ടുകളെന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി പാട്ടുകളാണ് നമുക്ക് കേട്ടാൽ നമുക്ക് ഉറക്കം വരും ചിത്ര യേശുദാസ് അങ്ങനെ ഉള്ളവരൊക്കെ പാടിയ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അടിപൊളി പാട്ടുകളാണ് പണ്ടത്തെ പാട്ടുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പാട്ട് വെച്ച് നോക്കുമ്പം ഒരുപാട് നല്ലത് എന്തുകൊണ്ടും നല്ലത് പണ്ടത്തെ പാട്ട് തന്നെയാണ് ഇപ്പം ഉണ്ടാവും ഒരു ഒന്നോ ഇപ്പം ഒരു നൂറ് പാട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പാട്ട് നല്ലതായിരിക്കും പക്ഷേ പണ്ട് അങ്ങനെയല്ല നൂറ് പാട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ്റിയെട്ട് പാട്ടുകളും നല്ല അടിപൊളി പാട്ടായിരിക്കും ഇപ്പോഴും അതായത് പാടുമ്പം അതായത് ടി വിയിലൊക്കെ കേൾക്കുമ്പം നമുക്കത് കേട്ട് നിന്ന് പോവാൻ തോന്നും അത്രയ്ക്ക് നല്ല പാട്ടുകളാണ് ഇപ്പോഴത്തെ പാട്ടുകൾ പണ്ടത്തെ പാട്ടുകളെ അപേക്ഷിച്ച് നോക്കുമ്പം എനിക്കെന്തായാലും പണ്ടത്തെ പാട്ട് തന്നെയാണ് ഇഷ്ടം ഇപ്പോഴത്തെ പാട്ടിനോട് എനിക്കൊട്ടും താല്പര്യമില്ലാ